നമ്മുടെ നാട്ടിൽ റെസ്റ്റോറൻ്റുകൾ വർദ്ധിച്ചു വരുന്നത് കാർഷിക മേഖലയെ വലിയ രീതിയിലൊന്നും ബാധിക്കുമെന്നെനിക്ക് തോന്നുന്നില്ല ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ളു കാരണം റെസ്റ്റോറൻ്റും കാർഷിക മേഖലയായിട്ടൊരു താരതമ്യപ്പെടുത്തൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ് മെയിനായിട്ടെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ടൗൺ ഏരിയയിലൊക്കെ ആണെങ്കിൽ കാർഷികമേഖല വളരെ കുറവാണ് ആൾക്കാർ അല്ലെങ്കിൽ പ്രത്യേകിച്ച് യുവജനങ്ങൾ കാർഷിക മേഖലയിലേക്കൊട്ടും പോകുന്നില്ല അതിന് അവർ പഠിക്കുന്നു ഏതെങ്കിലും ഒരു ജോലി സമ്പാദിക്കുന്നതല്ലേ എന്താ ആണെന്നു പറഞ്ഞാലും ചെറിയ ജോലികൾക്ക് പോകുന്നു കിട്ടുന്ന പൈസ കൊണ്ടവർ റെസ്റ്റോറൻ്റുകളിൽ നിന്ന് ഭക്ഷണം ഓർഡർ ചെയ്തും മേടിക്കുന്നു കഴിക്കുന്നു കൃഷി ആയിട്ടവർക്കൊരു ബന്ധവും ഇല്ല കൃഷി ചെയ്യാനവർക്കൊട്ട് താൽപര്യവും ഇല്ല പഴയ രീതിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷി ആണ് നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ നട്ടെല്ല് നട്ടല്ലെന്ന് പറയുന്നത് കർഷകരായിരുന്നു ആ കർഷകരുണ്ടെങ്കിൽ മാത്രമേ ഒരു നാട് അല്ലെങ്കിൽ ഒരു സമൂഹം ഒരു രാജ്യം നിലനിൽക്കുക നിലനിൽക്കുകയുള്ളു ആ അതിൻ്റെ അടിസ്ഥാനം എന്നു പറയുന്നത് കർഷകരായിരുന്നു ഇന്നിപ്പോൾ കാർഷിക വിദ്യയിലേക്ക് ഇപ്പോൾ നിലവിലുള്ള ജനങ്ങൾ മാറ അല്ലെങ്കിൽ ഇപ്പോൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നവർ മാത്രമേ ആ കൃഷിയിലേക്ക് കൃഷി ചെയ്യുന്നുള്ളു ബാക്കിയുള്ളവരാരും തന്നെ കൃഷിയിലേക്ക് മാറുന്നില്ല അല്ലെങ്കിൽ കൃഷി ചെയ്യാനവർക്ക് താൽപര്യം ഇല്ല എല്ലാം എന്തെങ്കിലു ഒരു ജോലി സമ്പാദിക്കാം എന്നുള്ള രീതിയിലേക്ക് ജനങ്ങൾ മാറിക്കഴിഞ്ഞു അപ്പോൾ അവർക്ക് ജോലി ചെയ്യുക പൈസയുണ്ടാക്കുക നല്ല ഫുഡ് കഴിക്കുക ഫുഡ് കഴിക്കാമെന്നു പറഞ്ഞ് കഴിയുമ്പോൾ ഹോട്ടലിൽ ഓഡർ ചെയ്യുന്നു കഴിക്കുന്നു ഹോട്ടലുകാർ ചെയ്യുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഹോട്ടലുകാർ കൃഷിക്കാരുടെ കയ്യിൽ നിന്നും ഒരിക്കലും ഭക്ഷണം വാങ്ങാനവർ അല്ല സോറി കൃഷിക്കാരുടെ കയ്യിൽ നിന്നും പച്ചക്കറികൾ മറ്റു കാര്യങ്ങളോ എടുക്കാനവർ ഒരിക്കലും തയ്യാറാകുന്നില്ല അവർ ബൾക്കായിട്ട് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് മേഖലയിൽ നിന്ന് ബൾക്കായിട്ടവർ സാധനങ്ങൾ കൊണ്ടുവരുന്നു അവർക്ക് വില കുറച്ച് അങ്ങനെ വരുമ്പോൾ അവർക്ക് വില കുറച്ച് സാധനങ്ങൾ കിട്ടുന്നു അവരത് അവരത് അങ്ങനെ ആണ് അവരധികം അത് യൂസ് ചെയ്യുന്നു കൃഷിക്കാരിൽ നിന്ന് നേരിട്ട് ഈ റെസ്റ്റോറൻ്റുകാർ ഭക്ഷണം അല്ല കാർഷിക സാധനം അതായത് ഭക്ഷ്യ വസ്തുക്കൾ വാങ്ങിക്കുകയാണെങ്കിൽ ഈ നമ്മൾ ഇത് ഒരിത് ഒരു രീതിയിലും ബാധിക്കുകയില്ല പക്ഷെ കർഷകരിൽ നിന്നവർ നേരിട്ടു വാങ്ങി വാങ്ങുന്നില്ല അപ്പോൾ ഇത് കർഷകർ നേരിട്ട് വാങ്ങിക്കുമ്പോൾ അവർക്ക് വില കൂടുതൽ കൊടുക്കേണ്ടി വരും ആ സമയം അവർ ബൾക്കായിട്ട് വേറേ സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റു സ്ഥലങ്ങളിൽ നിന്നും ബൾക്കായിട്ട് സാധനം അവരെടുക്കുന്നതുകൊണ്ട് അവർക്ക് വളരെ വില കുറച്ച് കിട്ടുന്നു അപ്പോൾ ആ രീതിയിൽ വെച്ചു നോക്കുമ്പോഴാണ് കാർഷിക മേഖലയിൽ റെസ്റ്റോറൻ്റുകൾ വന്നതുകൊണ്ട് ചെറിയ രീതിയിലൊക്കെ അത് ബാധിക്കുകയുള്ളു കൃഷി ഇല്ലയെന്നായി വരുന്ന ഒരു സാഹചര്യമുണ്ട് അത് റെസ്റ്റോറൻ്റുകൾ പഠിച്ച് വരുന്നതുകൊണ്ടല്ല ഇന്നത്തെ തലമുറ കൃഷി ചെയ്യാനായിട്ട് അവരൊട്ടും താൽപര്യം കാണിക്കുന്നില്ല കൃഷിയിലേക്കവർ ഇറങ്ങുന്നില്ല കൃഷി ചെയ്യുന്ന കർഷകരോട് പുച്ഛമാണ് കൃഷി എന്നു പറയുന്നത് തന്നെ അവർക്ക് അലർജിയാണ് ആ രീതിയിലാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ മുമ്പോട്ടു പോകുന്നത് അപ്പോൾ റസ്റ്റോറൻ്റ് വർദ്ധിച്ചു വരുന്നതെന്ന് എന്നും റെസ്റ്റോറൻ്റ് വർദ്ധിച്ചു വരുന്നതെന്നും പറയാൻ പറ്റുകയില്ല പല റസ്റ്റോറൻ്റുകളും പൂട്ടിപ്പോകുന്ന സാഹചര്യങ്ങൾവരെ ഉണ്ട് അപ്പോൾ കാർഷിക മേഖലയെ വളരെ ഒരു ഒരു വലിയ രീതിയിൽ റെസ്റ്റോറൻ്റ് വന്നതൊന്നും ബാധിക്കുന്നൊന്നും ഇല്ല കൃഷി ചെയ്യാൻ ജനങ്ങൾ തയ്യാറാണെങ്കിൽ അവർക്കതിൻ്റെതായ മെച്ചം കിട്ടുന്നതുകൊണ്ട് കൃഷി അവരുടെ കൃഷി ചെയ്യുന്ന അല്ലെങ്കിൽ കാർഷിക ആവശ്യ കാർഷിക വിളവുകൾക്ക് ന്യായമായ വില ലഭിക്കുന്നുണ്ട് പക്ഷേ ഇന്നത്തെ ഒരു തലമുറ എന്നു പറയുന്നത് കൃഷി ചെയ്യാനവർ തയ്യാറല്ലാതെ വരുന്നതുകൊണ്ടാണ് കാർഷിക മേഖല ഇങ്ങനെ നശിച്ചു പോകുന്നത് അല്ലാതെ റെസ്റ്റോറൻ്റ് വന്നതിൻ്റെ പേരിലാണ് എന്നു നമുക്ക് പറയാൻ സാധിക്കുകയില്ല